ഹലോ അ എന്താണ്

എന്താണ് വിളിച്ചത് ആ അത് ഞങ്ങൾ അയൽവക്കക്കാരെല്ലാം കൂടി നൈബേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു മെംമ്പറായിട്ടുള്ള പത്തുപേരായിട്ടുള്ള മെമ്പറായിട്ട് ഉള്ള ഒരീതാണ് ഗ്രൂപ്പാണ് ആ പത്ത് അല്ലേൽ ഇരുപത് പേർ പതിനഞ്ച് പേരുണ്ട്

നമ്മുടെ വീട്ട് മുറ്റത്തൊരു ബാങ്ക് പോലെ നമുക്ക് കിട്ടും കൃഷിയൊക്കെ ചെയ്യാം ആ അതെ അതെ ഇൻട്രസ്റ്റൊക്കെ കുറവാണ് ആ എല്ലാത്തിനും ഉണ്ട് എല്ലാത്തിനും കിട്ടും ആ

ഇതിൽ ചേർന്നാൽ നമുക്ക് ബാങ്കിന്ന് അസ്സിസ്റ്റൻസ് കിട്ടും നാലു പേർ കൂടിയുള്ള ജെ ജെ എൽ റ്റി ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും ഹലോ ഹലോ